പറശ്ശനിക്കടവ് മാഹിപ്പള്ളി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കൊട്ടിയൂർ മൂകാംബിക മുരുഡേശ്വര അങ്ങനെ പറശ്ശിനിക്കടവ് വരുന്നത് കണ്ണൂരാണ് പിന്നെ മാഹിപ്പള്ളി മാഹി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം വരുന്നത് ഇരുട്ടി അയ്യരു ഭാഗത്താണ് പിന്നെ മുരുഡേശ്വര മൂകാംബിക കൊട്ടിയൂർ അങ്ങനെ ആരാധനാലയങ്ങളൊക്കെയാണ്